ഹലോ സാർ ഞാൻ അനീഷ എൻ്റെ പേര് അനീഷ ഞാനാണെങ്കിൽ ആര്യൻങ്കാവിൽ നിന്ന് വിളിക്കുകയാണേ ഇവിടെ അമ്പലത്തിൽ ഇടയ്ക്ക് ഉത്സവം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രദക്ഷിണവും അങ്ങനെ കാര്യങ്ങളും ഒക്കെയായിരുന്നു ഇന്നലെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുൾ മലിനമായി അവർ വെള്ളം കുടിച്ചതിൻ്റെ ബോട്ടിൽ കുപ്പികൾ അതേപോലെ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് അതെല്ലാം കിടപ്പുണ്ട് ഇതൊക്കെ ഒന്ന് ഇവിടുത്തെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാമോ അത് ചോദിക്കാനായിരുന്നു ഞാൻ സാറിനെ വിളിച്ചത് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ആര്യങ്കാവ് അമ്പലത്തിൻ്റെ അവിടെനിന്നും ഇങ്ങ് ഹോസ്പിറ്റലിൻ്റെ അവിടെവരെ ഉണ്ട് പ്രദക്ഷിണം അവിടെ വരെ ആയിരുന്നു അങ്ങനെ ആ വഴി എല്ലാം ഒന്ന് വൃത്തിയാക്കി സാറൊന്ന് വൃത്തിയാക്കാൻ വോ ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ആരെയെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്യാമോ